ഇന്ത്യക്കാർ പൊതുവേ മൂന്ന് നേരമാണ് ഭക്ഷണം കഴിക്കാറുള്ളത് മെയിൻ ഫുഡ് കഴിക്കുന്നത് മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്ക് രാത്രി അതിൽ നോൺ വെജ്ജും വെജ്ജും കഴിക്കുന്നവരും വെജ് മാത്രം കഴിക്കുന്നവരും ഉണ്ട് വെജ് മാത്രം കഴിക്കുന്നവർ അവർക്ക് സമീകൃത ആഹാരം എന്ന രീതിയിൽ പാൽ സോയ മുളപ്പിച്ച ധാന്യങ്ങൾ പയർ വർഗ്ഗങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇവയൊക്കെ അവരുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താറുണ്ട് പിന്നെ ഫ്രൂട്സ്സും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മിൽക്ക് കോഴിമുട്ട ഇതൊക്കെ ധാരാളമായിട്ട് എല്ലാവരും അവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സൗത്ത് ഇന്ത്യ എടുത്ത് കഴിഞ്ഞാൽ അവിടെ അരിക്കാണ് കൂടുതൽ പ്രാധാന്യം അതുപോലെ നോർത്ത് ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗോതമ്പിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് മസാലയുടെ കാര്യത്തിലായാലും സൗത്ത് ഇന്ത്യക്കാർ നോർത്ത് ഇന്ത്യക്കാരെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ മസാല ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പിന്നെ സൗത്ത് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് അവരുടെ സദ്യയാണ് എല്ലാ വിശേഷ അവസരങ്ങളിലും അവർ ഉണ്ടാക്കുന്ന സദ്യ നമുക്ക് കൂടുതൽ പോഷണം തരുന്ന ഒരു രീതിയാണ് അതിൽ എല്ലാ പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഒരു സദ്യ ഇപ്പോഴത്തെ യൂത്ത് കൂടുതൽ ജങ്ക് ഫുഡ്ഡിനെ ആശ്രയിക്കുന്നുണ്ട് അത് നോർത്ത് ഇന്ത്യയിലായാലും സൗത്ത് ഇന്ത്യയിലായാലും എല്ലാം ഒരുപോലെയാണ് അറബിക് ഫുഡ്ഡുകൾ അതൊക്കെ ഇപ്പം കൂടുതൽ കണ്ട് വരുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത് മേയിൻ ആയിട്ട് അരി ഗോതമ്പ് ഇവയെ ഒക്കെ ആശ്രയിച്ചിട്ടാണ് ഉള്ളത് ഫ്രൂട്ട്സ് വെജിറ്റബിൾ സീരിയൽസ് അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു സമ്മിശ്ര ഭക്ഷണരീതിയാണ് ഇന്ത്യയിൽ പൊതുവേ കണ്ട് വരുന്നത്